മനുഷ്യന് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒന്നാണ് മതം

നമ്മുടെ ആരോ പറഞ്ഞതെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മതങ്ങളെന്നു പറഞ്ഞാൽ ഓരോ മനുഷ്യനും മതമെന്നു പറഞ്ഞാൽ ഒരു വികാരമാണ് അപ്പം ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ മതത്തെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ മതത്തെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ മതങ്ങൾ എന്നു പറയുന്നത് വളരെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും മനുഷ്യന് ഒഴിച്ചു കൂടാൻ മേലാത്ത ഒന്നാണ് മതങ്ങൾ എൻ്റെ മതത്തിനെക്കുറിച്ച് അപ്പം ഒരാൾ കുറച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് എന്നെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ അത് സമൂഹമാധ്യങ്ങൾക്ക് അതിനകത്തൊരു അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങൾക്ക് അതിനകത്തൊരു ഒരു നിർണ്ണായകമായ പങ്കുണ്ട് സത്യസന്ധമായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരാളുടെ മതത്തെ വൃണപ്പെടുത്തുന്ന ഈ രീതിയിലുള്ള വാർത്തകൾ

വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മതസൗഹാർദ്ദം കരിപിടിപ്പിക്കുന്നതിൽ വർത്താമാധ്യമങ്ങൾക്ക് ഒരു മുഖ്യ പങ്കുണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്താ പറയുക സമൂഹ മാധ്യമങ്ങൾ വാട്സാപ്പ് ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിലൂടെയൊക്കെ വരുന്ന മാധ്യമങ്ങൾ ലൂടെയുള്ള വാർത്തകളൊക്കെ പെട്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യും പ്രതികരിക്കുകയും ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പം എന്താ പറയുക അവനവൻ്റെ മതത്തെ മറ്റുള്ളവരുടെ മതത്തെ ബഹുമാനിച്ചു കൊണ്ടു വേണം നമ്മുടെ മതവികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് മറ്റൊരാളെ മുറിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ചിന്തകളും പ്രവർത്തികളും ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് മതമെന്നു പറയുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മളെപ്പോഴും മറ്റൊരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്തു കൊണ്ടും ബഹുമാനിച്ചു കൊണ്ടും ആദരിച്ചു കൊണ്ടും വേണം നമ്മൾ ഇരിക്കുവാൻ അന്യ അന്യ മതങ്ങളെ നമ്മൾ അതേ രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തികളും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാതിരിക്കുക അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് മതത്തിൽ സാധാരണ എല്ലാവരും ഓരോ മതത്തിൽ വിശ്വസിക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ അവരോരോ വിശ്വസിക്കും അത് അവരുടെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യമാണ് ഓക്കെ